ആ ഞാൻ ഒരുപാട് പുസ്തകം വായിക്കുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ വളരെ റെയർ ആയിട്ട് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അത്ര പ്രശസ്തമായിട്ടുള്ള ചില പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പം എനിക്കങ്ങനെ വായിച്ചതിൽ ഏറ്റവും എനിക്കിഷ്ടം തോന്നിയ ചില ക പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ബെന്യാമിൻ എഴുതിയ ആട് ജീവിതം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ് അതുപോലെ തന്നെ എം മുകുന്ദൻ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പുസ്തകം ഉണ്ട് അതിൻ്റെ പേര് ഞാൻ ഇപ്പം കൃത്യമായിട്ട് ഓർക്കുന്നില്ല ആ ഒരു അങ്ങനെ ഒന്ന് രണ്ട് പുസ്തകങ്ങളാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അതാണ് ആ പുസ്തകത്തിൻ്റെ പേര് അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ സ്വാധീനി നമ്മൾ ഇപ്പം ജീവിക്കുന്ന കാലഘട്ടത്തിലെ വളരെ സൗകര്യപൂർവ്വം അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ നമ്മൾ അറിയത്തില്ലാത്ത ആ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളെ ഈ രണ്ടു കഥകളും കൊണ്ടുപോകുന്നത് ആ അതിൽ പ്രത്യേകിച്ചും ആട് ജീവിതം എന്ന് പറഞ്ഞ ആ ഒരു കഥ എനിക്ക് എപ്പോഴും തോന്നാറ് നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഒരു ഏരിയ അപ്പോൾ അത് നമ്മൾ നമ്മളിപ്പം സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കുന്നു അപ്പം അതിലും അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ അറിയത്തില്ലാത്ത ഒരുപാട് സംഘർഷങ്ങളിലൂടെയും ഒരുപാട് പ്രത്യേക സാഹചര്യങ്ങളിലൂടെയും ജീവിക്കുന്ന മനുഷ്യർ ഉണ്ട് അതിനെ തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് കാണിച്ചു തന്ന ഒരു പുസ്തകമായിട്ടാണ് എനിക്കത് തോന്നുന്നത് ആ രീതിയിലാണ് ആ പുസ്തകം എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് അതുപോലെതന്നെ ഈ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അത് ഒരു കാലഘട്ടത്തിനും മുമ്പുള്ള കഥയാണ് അപ്പം നമ്മളിപ്പം ജീവിക്കുന്നതിനൊക്കെ ഈ ഒരു കാലഘട്ടത്തിനൊക്കെ ഒരുപാട് മുമ്പുള്ള കഥയാണ് അപ്പം അതിൻ്റെ പ്രത്യേകത ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തെയാണ് ആ പുസ്തകം നമ്മളിലേക്ക് എത്തിക്കുന്നത് അപ്പം ഇങ്ങനെയും ഒരുപാട് മനുഷ്യർ നമ്മുടെ ലോകത്തിൽ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് അറിയാൻ ആയിട്ട് അത് നമ്മുടെ ഇന്നത്തെ ജീവിതത്തെ വരെ ആ ചിന്തകൾ സ്വാധീനി സ്വാധീനം ചെലുത്താനും സാധ്യതയുള്ള ആ ഒരു ഒരു ഒരു കഥയാണ് എനിക്ക് എനിക്ക് മയ്യഴിപ്പുഴയിൽ യുടെ തീരങ്ങളിൽ എന്ന പുസ്തകം വായിച്ചത് വഴി തോന്നിയത്